എനിക്ക് അനങ്ങനെ വരക്കാൻ തോന്നാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കരണെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും അങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂട് ഇപ്പോൾ ചിലപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഭാര്യായായിട്ട് ഒച്ചപ്പാട് അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഒച്ചപ്പാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാണെങ്കിൽ നമുക്ക് അങ്ങനെ വരക്കാനൊന്നും തോന്നൂല കാരണമെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ നമുക്കൊരു മൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സന്തോഷോം കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം വരക്കാനുള്ളൊരു മൂടുണ്ടാവുളളൂ അങ്ങനെ എല്ലാ ദിവസവും ഞാനങ്ങനെ വരക്കാറില്ല ചില ദിവസങ്ങളിൽ മാത്രമേ വരക്കാറുള്ളൂ ആ ദിവസങ്ങളിൽ എനിക്ക് വലിയ മൂട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരക്കാറില്ല പിന്നേന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ ജോലിയും ഈ ചിത്രം രചനയും മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്ങനാന്ന് വെച്ചു കഴിഞ്ഞാൽ ജോലിസമയത്ത് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും വരക്കാറില്ല കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാനൊരു ഫ്രീ മൈൻഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ വരക്കാറുള്ളൂ അതും എപ്പൊഴൊന്നും വരക്കാറില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി ടൈമിലുള്ള കുറെ കാര്യങ്ങളൊക്കെ വീട്ടിന്ന് ചെയ്യേണ്ടി വരുന്ന കുറെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എനിക്കങ്ങനെ വരക്കാൻ ഭയങ്കര എന്താ പറയാ ഉണ്ടായിരിക്കും പക്ഷേ നമുക്കങ്ങനെ ചെയ്യാനൊന്നും പറ്റാറില്ല